ഞാൻ ഒരാഴ്ച്ച മുമ്പ് ഒരു മോപ്പ് വാങ്ങിച്ചു സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻ്റിങ്ങായിട്ട് എന്നിട്ട് നിന്ന ഒരു പ്രോഡക്ട് തന്നെയായിരുന്നു ഒരു മോപ്പ് വാങ്ങിച്ചു പക്ഷേ അത് അതിൻ്റെ ആദ്യ യൂസിൽ തന്നെ അത് അതിന് ഒട്ടും ഗുണനിലവാരമില്ലയെന്ന് മനസ്സിലായി കാരണം അതിൻ്റെ ആ മോപ്പിൻ്റെ സ്റ്റിക്കിന് ഒട്ടും ബലമില്ലായിരുന്നു ആദ്യത്തെ യൂസിൽ തന്നെ അതിന് അത് പൊട്ടൽ സംഭവിച്ചു അതു മാത്രമല്ല അത് അത് അത് അതു മാത്രമല്ല അതിൻ്റെ തുണിക്ക് വളരെ വലിഞ്ഞു പോയി അത് ഒട്ടും വൃത്തിയാവുന്നില്ല അത് ബനിയൻ ക്ലോത്തായിരുന്നു കോട്ടൺ ക്ലോത്താണെന്ന് കരുതി വാങ്ങിയതൊരു ബനിയൻ ക്ലോത്തായിരുന്നു രണ്ടാമത്തെ അനുഭവം എനിക്കുണ്ടായത് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻ്റിങ്ങായിട്ട് പോയിട്ടുള്ള ഒരു ഡിഷ് വാഷറായിരുന്നു ഡിഷ് വാഷറായിട്ട് വാങ്ങിയിട്ട് വളരെ അധികം മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് അത് ഒട്ടും വൃത്തിയാവുന്നുമില്ല വളരെ മോശം പ്രോഡക്ട് തന്നെയായിരുന്നു അത്